സംഗീതാവിഷ് ആവിഷ് ആവിഷ്കരണത്തെ മെച്ചപ്പെടുത്തുവാൻ ശരീരത്തെയും മുഖഭാവങ്ങളെയും എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നതിനുള്ള ഒരു ആൻസർ അതായത് നിരന്തരമായി നമ്മളെ സങ്ങീ സംഗീതം അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുള്ളി സൗണ്ടിനെ നിയന്ത്രിക്കുന്നതിനും സൗണ്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനുമുള്ള എല്ലാ വ്യായാമങ്ങളും ചെയ്യേണ്ട ആളായിട്ട് വരും അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിനു വേണ്ടി നമ്മളെ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വെ പാട്ട് വാദ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വെ പാട്ട് സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തി ആവുമ്പം ഒരു കാരണവശാലും പച്ചവെള്ളം നെറുകയിൽ ഒഴിച്ച് ഇങ്ങനെ തൊണ്ട കേടാക്കാനും തലയിലേക്ക് പച്ചവെള്ളം അതിൽ ചെന്ന് ചാടിയും കുളിച്ചും തൊണ്ട കേടാക്കാനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം അതിന് വേണ്ടി നല്ല എപ്പോഴും തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ചൂടുള്ള വെള്ളം കുടിക്കുകയും ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും തണുത്ത ആഹാരങ്ങളും തണുത്ത വെള്ളം വെള്ളവും ഉപയോഗം കുറയ്ക്കുകയും ചെയ്യണം ചൂടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയും അധികം മസാലകൾ നിറഞ്ഞ ആഹാരങ്ങൾ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യണം ഒത്തിരി സൗണ്ടിനെ സൗണ്ട് നല്ല നല്ല സ്വരമധുരമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശാരീരികമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം പച്ചവെള്ളം ഉപയോഗിക്കാതെയും പച്ചവെള്ളത്തിൽ കുളിക്കാതെയും സന്ധ്യാ സമയങ്ങളിലും ഉള്ള പച്ചവെള്ളത്തിലുള്ള കുളിയും തോട്ടിലും ആറ്റിലുമൊക്കെ ചാടിയുള്ള കുളിയൊക്കെ ഒഴിവാക്കുക അതൊക്കെ അങ്ങനെ അതൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ട ആ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് എപ്പോഴും ചൂടാഹാരങ്ങളും ചൂടുവെള്ളവും കുടിച്ച് തൊണ്ട കേടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതിന് വേണ്ടി തന്നെ തേൻ ഉപയോഗിക്കുക തേൻ ചെറിയ ചൂടുവെള്ളത്തിൽ തേൻ ഉപയോഗിക്കുക നാരങ്ങാനീരിനകത്ത് തേൻ ഉപയോഗിക്കുക ഉപയോഗിക്കുക അതൊക്കെ ചെയ്ത് സ്വരത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റും കൂടാതെ അധികം പുളിയും ഒത്തിരി മസാല ചേര്ന്ന ആഹാരപദാര്ത്ഥങ്ങള് ഉപേക്ഷിക്കുക അതൊക്കെ പിന്നെ ശരീരത്തിന് നല്ലതായ എക്സർസൈസുകൾ നൽകുക അതൊക്കെ ശാരീരികമായ ശ്രദ്ധകൾ നൽ ചെലുത്തുകയും സ്വരത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാം പിന്നെ സംഗീതകൻ എന്ന നിലയിൽ പാട്ടുകളിലെ പാട്ടുകളിലെ ഓ ഈണവും താളവുമൊക്കെ ഇട്ട് നമ്മൾ പാട്ടുകൾ പാടി അഭ്യസിച്ച് കൊണ്ടിരിക്കുക അങ്ങനെ അഭ്യസിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്വരം നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലാതെ ഒരൂ പാട്ട് പാടാന് ചുമ്മാ ഒരു സ്റ്റേജിലേക്ക് കയറി നിന്ന് വെറുതെ പാടുന്നത് പോലെ അല്ലാതെ അതിന് വേണ്ടി എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇണക്കി നമ്മൾ ശാരീരികമായിട്ടും അതിനെ വേണ്ട ക്രമങ്ങളും നടത്തി വേണം ഒരു ഒരു സംഗീതകൻ എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്